അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമൂള്ള ഭക്ഷണമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ബിരിയാണിയാണ് അപ്പം ബിരിയാണി കഴിക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് പിന്നെ ചില സമയങ്ങളിൽ ഞാൻ പല രീതിയിലുള്ള ഭക്ഷണമൊക്കെ കഴിക്കാറുണ്ട് ഇപ്പോളേത് എപ്പോഴും നമ്മൾ ബിരിയാണി കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വയറ്റിലെന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് ഞാൻ പല രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കാറുള്ളത് ഇപ്പം രാവിലെയൊക്കെയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ദോശയും ആ ഇപ്പം കടലക്കറിയും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കഴിക്കുക ഉച്ചക്കാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ചില സമയങ്ങളിൽ എനിക്ക് തോന്നിയല്ല് മാത്രമേ ഞാൻ ബിരിയാണിയും കാര്യങ്ങളൊക്കെ കഴിക്കാറുള്ളു അല്ലാത്ത സമയത്തൊക്കെ ഞാൻ ചോറും കറികളാണ് കൂടുതലായിട്ടും കഴിക്കാറുള്ളത് അതിപ്പം നമ്മളിവിടെ തന്നെ അപ്മ്മ് ബിരിയാണി ആണെങ്കിൽ നമുക്ക് ഇവിടെ ബിരിയാണി തന്നെ വിക്കുന്നൊരു കടയും കാര്യങ്ങളൊക്കെയുണ്ട് നമുക്കിവിടെ ബീച്ചിൻ്റെ ഒരു സൈഡിലാണ് വിൽക്കുന്നത് അപ്പോൾ അവിടെ നല്ല അടിപൊളി ആയിട്ടുള്ളൊരു ബിരിയാണിയും കാര്യങ്ങളൊക്കെ ആണ് ഞാൻ കൂടുതലായിട്ടും ബിരിയാണി കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ അവിടെ വന്നിട്ടാണ് കൂടുതലായിട്ടും കഴിക്കുക അപ്പം സാദാ ചോറൊക്കെയാണെങ്കിൽ നമ്മൾ സാധാരണ ഏതെങ്കിലും മെസ്സിലോ ഇപ്പം കുടുംബശ്രീയുടെ വകയുള്ള മെസ്സും കാര്യങ്ങളൊക്കെയുണ്ട് അപ്പം അവിടുന്നാണ് കൂടുതലായിട്ടും കഴിക്കാറുള്ളത് അത് പൈസയില്ലാത്ത സമയത്തൊക്കെയാണങ്കിൽ നമ്മുടെ സർക്കാരിൻ്റെ വകയുള്ള കുടുംബശ്രീയുടെ ജനകീയ ഹോട്ടലെന്ന് പറഞ്ഞിട്ടുള്ള അവിടെയൊക്കെയാണ് പൈസ കുറവൊക്കെ ആണെങ്കിൽ ഞാൻ അവിടെ പോയിട്ടാണ് കൂടുതലായിട്ടും കഴിക്കാറുള്ളത്